മേഡം ഭയങ്കര പ മേഡം ഭയങ്കര പനിയാണ് മേഡം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച്ചയായി കാണിച്ചായിരുന്നു കുറച്ച് ടാബ്ലറ്റ് തന്ന് കുടിച്ചിട്ട് കുറവില്ല ആ ജലദോഷം ഉണ്ട് ഇപ്പോഴും ഉണ്ട് ആ ആവി ആ പിടിക്കാറുണ്ടായിരുന്നു ഇല്ല എന്നിട്ടും കുറവില്ല

ചുമ ഇല്ല തലവേദന ഉണ്ട് ഇല്ല ഇല്ല ആ നോക്കിയതാണ് എല്ലാം നോർമൽ ആണ് ഇല്ല ടാബ്ലെറ്റ് കുറച്ചുകൂടെ ബാക്കിയുണ്ട് ആ ജലദോഷത്തിന് ഗുളികയുണ്ട് കാണിച്ചിട്ട് ഇപ്പോൾ നാല് ദിവസം ആയിട്ടുണ്ടാവും ഒരാഴ്ചത്തേക്കുള്ളത് ആ പാരസെറ്റാമോൾ

ചുമയൊന്നും ഇല്ല തൊണ്ടവേദന ആ തൊണ്ടവേദന ഉണ്ട് ചെറുതായിട്ട്

ആ ബുക്ക് ചെയ്യാം ആ ബുക്ക് ചെയ്യാം ആ ആയിക്കോട്ടെ